ഹലോ ആ ഇത് ഡോക്ടർ അല്ലേ ആ ഡോക്ടറേ എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നേ ഭയങ്കര പെയിൻ ആണ് ഇല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എണീക്കാൻ ഞാൻ ഉറങ്ങുവായിരുന്നു പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റുന്നില്ല ഭയങ്കര പെയിൻ ആണ് നൈറ്റ് ചപ്പാത്തി ആയിരുന്നു ഇല്ല വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്

വെള്ളം കുടി കുറവാണ് ആയിരിക്കുമല്ലേ ആ ഒരു സൈഡിലാണ് വലത് സൈഡ് ഭയങ്കര പെയിൻ ആണ് നടുവേദന എണീറ്റ് നിൽക്കുമ്പോഴാണ് പേയിൻ അപ്പം നിൽക്കാൻ പറ്റുന്നില്ല

ആ ടൈമിനാണ് കഴിക്കൽ ആ ജോലിക്ക് പോവുന്നുണ്ട് ഓഫീസിൽ പോവുന്നുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ആ മ് ആ ഓക്കെ ആ ഒരു സൈഡ് ആയിരിക്കുമല്ലേ ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ആ ഓക്കെ എന്തായാലും ഞാൻ എന്നാൽ ടെസ്റ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം ഇല്ല ഇല്ല ആ

ആ ഓക്കെ ആ ഓക്കെ